ആ ഹലോ അതെ അതെ ആ ഹാ പറഞ്ഞോളൂ പറഞ്ഞോ ആ ആ ആ ആ ആ എന്താണ് അറിയേണ്ടത് തെങ്ങ് എങ്ങനെ കൃഷി ചെയ്യുന്ന രീതികളെ കുറിച്ചാണോ അതോ തെങ്ങ് കൊണ്ടുള്ള ഉപയോഗങ്ങളാണോ എന്താണ് അറിയേണ്ടത് ആ ആ ആ ആ നമുക്കിപ്പം തെങ്ങ് കൃഷി നല്ല ആദായം ഉള്ള ഒരു പരിപാടി തന്നെ ആണ് അത് പക്ഷേ കൃ കൃത്യമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അങ്ങനെയുള്ള പരിചരണവും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അതിൻ്റെ കൃഷി ഏതാണ് ആദ്യം നമുക്ക് നല്ല തൈ തൈ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് തൈ സംഘടിപ്പിച്ച് അത് വേണ്ട വളമെല്ലാം കൊടുത്ത് കഴിഞ്ഞാലേ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഫലം എടുക്കാൻ പറ്റും അതിൻ്റെ കരിക്ക് ആയിട്ടാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിപ്പോൾ എടുക്കുന്ന ഒത്തിരി സ്ഥലങ്ങളും ഉണ്ട് നമുക്കത് കൊണ്ട് കൊടുക്കേണ്ടി വരത്തില്ല നമുക്ക് ഇവിടെ തന്നെ വന്ന് എടുത്തുകൊണ്ട് പോവുന്ന ആളുകളും ഉണ്ട് അതിപ്പം ക തേങ്ങ ആണെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പം ഓല മടൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവാൻ ആൾ നമ്മുടെ അവിടെ ഒക്കെ തന്നെ വരും നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ആദായകരമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ല ഏത് കാലാവസ്ഥയിലും നമുക്ക് വയ്ക്കാവുന്നതും പരിചരിക്കാവുന്നതും ആണ് ഇപ്പം അധികം വെള്ളം കയറാത്തൊരു സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു കുറച്ച് പരിചരണം വേണമല്ലോ അത് ഒരിത്തിരി വെള്ളം കയറാത്ത ഇപ്പം നമുക്ക് ഒത്തിരി അങ്ങനെ തന്നെ വേണമെന്നില്ല ഇപ്പം നമുക്ക് കണ്ടം ഒക്കെ ആണെങ്കിലും നമുക്ക് നികത്തി കുറച്ചൊന്ന് പൊക്കിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാനായിട്ട് പറ്റും ആ അതിന് ഇതും ഇതും അതിൻറെ അകത്ത് കുറേ വരാൻ സാധ്യത ഉള്ളതാണ് അതിപ്പോൾ കൃഷി ഓഫീസിൽ ചോദിച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ കിട്ടും അതാദ്യം തന്നെ കൊടുക്കേണ്ടതുണ്ട് അത് അത്യാവശ്യം ഒരു ആറേഴ് മാസം ആവുമ്പോൾ അതിന് ഇട്ട് കൊടുക്കേണ്ട വളങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് കുറേ മരുന്നുകളൊക്കെ ഉണ്ടത് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പം ഇല്ല ഒരു കുറച്ചു നാൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള വളങ്ങളും കാര്യങ്ങളും ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നീട് നമുക്കൊരു വലിയ പരിചരണത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഇപ്പം തന്നെ ആണെങ്കിലും ഒത്തിരി ഒത്തിരി നല്ല ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് കൃഷി ഓഫീസിൽ കിട്ടും എവിടെ ആയിട്ടാണ് ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിന് അടുത്ത് തന്നെ ഉള്ള കൃഷി ഓഫീസിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റുമേ ആ പുന്നപ്രയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റുന്ന സ്ഥലം ഒത്തിരി ഇത്തിരി കിഴക്കോട്ട് ഒക്കെ മാറി കഴിഞ്ഞാലേ അവിടെ ഒക്കെ തന്നെ കിട്ടും ഈ പുന്നപ്ര അതിനേക്കാട്ടിലും നല്ലത് കിഴക്കോട്ടുള്ള ഭാ ഭാഗത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഈ വെള്ളത്തിൻ്റെ പ്രശ്നവും അങ്ങനെ ഒക്കെ ഒരു കടലിൻ്റെ ആ ഭാഗത്ത് വയ്ക്കുന്നത് കാട്ടിലും നല്ലതേ കിഴക്ക് ആ ഒരു കായൽ ആറ് ആറ് ആ ഒരു പാടത്തിൻ്റെ സൈഡിലൊക്കെ ഉള്ള സ്ഥലം നോക്കുന്നതായിരിക്കും നല്ലത് അപ്പം അതിൻ്റെ വളവും കാര്യങ്ങളക്കെ അതനുസരിച്ച് നമുക്ക് കുറച്ച് മതിയാവും ഈ കടൽ സൈഡ് വരുമ്പം നമ്മൾ വളങ്ങളൊക്കെ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും മണ്ണിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പം എന്താണെങ്കിലും അത് കൂടുതലായിട്ട് അറിയണമെങ്കിൽ കൃഷി ഓഫീസിൽ ഒന്ന് ചോദിച്ചാൽ അതിന് പറ്റുന്ന കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് അവർ ചെയ്ത് തരും

ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഓക്കെ